പാലക്കാട് ജില്ലയിലെ കലാരൂപം എന്ന് പറഞ്ഞാൽ അത് ചാക്യാർകൂത്ത് ചാക്യാർകൂത്ത് പൊതുവെ ആശാന്മാര് അവരുടേതായ ആ ഒരു കുടുംബത്തിൽ നിന്നും കുടുംബത്തിലേക്ക് തലമുറകളായിട്ട് കൊടുത്ത് കൊടുത്ത് വരുന്ന ഒന്നാണ് ഈ കലകളെല്ലാം ചാക്യാർകൂത്ത് അങ്ങനെയാണ് കൂടുതലായിട്ടും പോകുന്നത് പിന്നെ നമ്മുടെ പാലക്കാട് ആണെങ്കിൽ പാലക്കാടിലെ ഏറ്റവും വലിയ അട്രാക്ഷനാണ് ഭാരതപ്പുഴ ഭാരതപ്പുഴ ഒഴുകിപ്പോകുന്നത് കല്പാത്തി കല്പാത്തി നമുക്ക് അറിയാവുന്ന ഒഴുകി കൽപ്പാത്തിത്തേര് ലോക പ്രസിദ്ധമായതാണ് കൽപ്പാത്തിത്തേര് രഥം വലിക്കലും അതിന് മറ്റും പാലക്കാടിൽ തന്നെ ഏറ്റവും പ്രൗഢമായ ഒരു ഉത്സവമാണ് കൽപ്പാത്തിത്തേര് അങ്ങനെ കൽപ്പാത്തിത്തേര് കല്പാത്തിയിലൂടെ ഒഴുകിപ്പോകുന്നത് ഭാരതപ്പുഴയാണ് സുന്ദരമായ സമനിലങ്ങളും എല്ലാം ഉള്ള വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് പാലക്കാട് അങ്ങ് കൊല്ലങ്കോട് ഭാഗത്തോട്ടൊക്കെ പോകുകയാണെങ്കിൽ ഇപ്പോൾ ലോകത്ത് ലോകത്തെതന്നെ മുൻ മുൻ ലോകത്തിലേക്ക് മുൻകാട്ടി കാണിക്കുന്ന പാലക്കാടിനെ എടുത്ത് നിൽക്കുന്നൊരു സ്ഥലമാണ് കൊല്ലങ്കോട് വളരെ മനോഹരമായ നല്ല നല്ല സ്ഥലങ്ങൾ നല്ല നല്ല പ്രകൃതി രമണീയമായ പച്ചപ്പും പാടങ്ങളും മലകളും അങ്ങനെ അങ്ങനെ നമ്മള് ഏറെ ഇഷ്ടപെടുന്ന കേരളം എന്താണെന്ന് നമ്മള് പെട്ടന്ന് പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ മല നിരകളും കാടും പുഴയും അങ്ങനെയൊരു മുഖച്ഛായ കാണിച്ച് തരുന്ന ഒരു സ്ഥലമാണ് പാലക്കാട് പാലക്കാട് നമ്മുടെ ഭയങ്കരം നമ്മളെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ഒരു സ്ഥലമാണ് പാലക്കാടിലെ ജനങ്ങളും ഏറെ പ്രിയപ്പെട്ടവരാണ് വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ അങ്ങനെ ഈ ഇപ്പോൾ ഈ കലാരൂപങ്ങളെല്ലാം കൈ മാറിവരുന്നത് പരമ്പരാഗതമായും കുടുംബപരമായും ആണെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം കുറേ പേര് അത് പഠിക്കുന്നു കുറെ പേര് ആ കലകളിലോട്ട് അടുക്കുന്നു ഇതെല്ലാം വളരെ നല്ല കാര്യങ്ങളാണ് ചരിത്ര പ്രധാന്യമുള്ളതും ഇനി വരുന്ന തലമുറകളിലേയ്ക്ക് നല്ല രീതിയില് കൈമാറി കൊടുക്കാവുന്നതുമായ കാര്യങ്ങളാണ്